ഹലോ ആ നമസ്കാരം എന്താ വിളിച്ചേ

ഓ സുഖമായിട്ടിരിക്കുന്നു ആ ഇൻഷുറൻസോ ഞൻ ഇൻഷുറൻസ് എനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് പ്രൈവറ്റ മുണ്ട് പിന്നെ എൽ ഐ സിയുടെ ഉണ്ട് എച്ച് ഡി എഫ് സീടെ വര ഇൻഷുറൻസ് രണ്ടും ഹെൽത്ത് ഇൻഷുറൻസണ് പിന്നെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് അങ്ങനെ അങ്ങനെ കൊറച്ച് ഇൻഷുറൻസ് ഇണ്ട് നിങ്ങള് ഏതാണ് നിങ്ങള് നോക്കുന്നത് ഓ ഹെൽത്ത് ഇൻഷുറൻസാണോ വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങള്ക്കു നിങ്ങളടെ പ്രായത്തിൻ്റെ ബേസിലാണ് എടുക്കുന്നത് പിന്നെ നിങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ ആണെന്നുണ്ടെങ്കില് ആ രീതിയിൽ എടുക്കാം നിങ്ങൾക്ക് മാത്രമാണെങ്കില് നിങ്ങളടെ മാത്രമായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കാം അതില് ഞാൻ നിങ്ങല്ക്കു റെക്കമെൻഡ് ചെയ്യുന്നതു നമ്മുടെ ഗവൺമെന്റിൻ്റെ എൽ ഐ സിയുടെ ജീവൻ ആരോഗ്യ ഇൻഷുറൻസുണ്ട് പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസിലും നാഷണൽ ഇൻഷുറൻസിലും ഉണ്ട് അപ്പോള് നിങ്ങള്ക്ക് അതിലും കിട്ടും പിന്നെ അതുപോലെ എച്ച് ടാറ്റാ എ ഐ ജി ഇങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻഷുറൻസുകളും ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോള് നിങ്ങള്ക്കു താല്പര്യം ഏതാണെന്നുവച്ചാല് അതിനനുസരിച്ചാണു പിന്നെ നിങ്ങള്ക്ക് കംപ്ലീറ്റായിട്ടുള്ളൊരു സെക്യൂർഡായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആവുമ്പോള് എൽ ഐ സി ആയിരിക്കും ബെറ്റര് പിന്നെ പ്രീമിയവും കുറച്ചു കുറവായിരിക്കും മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോള് പ്രൈവറ്റിനെ കമ്പയർ ചെയ്യുമ്പോള് ഇതിന്റെയകത്തു കുറച്ച് പ്രീമിയം കുറവായിരിക്കും അപ്പോള് അങ്ങനെ നിങ്ങള്ക്കതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോള് നിങ്ങള് ഏതാണ് വേണ്ടതെതെന്നുവച്ചാല് നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ ഒരഭിപ്രായത്തില് നിങ്ങക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കൂടെ ചേർന്ന് എൽ ഐ സിയുടെ ജീവൻ ആരോഗ്യ ഇൻഷുറൻസുണ്ട് അത് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്തുനോക്കാവുന്നതാണ് അപ്പോള് എന്താണെന്നുവച്ചാല് നിങ്ങൾ തീരുമാനിച്ചിട്ട് എൻ്റെയടുത്തൂ പറയൂ കേട്ടോ